നമ്മുടെ ഈ പ്രദേശത്ത് ശരിക്കും ആചാരങ്ങൾ എന്ന് പറയുന്നത് പള്ളിയിലെ പെരുന്നാളുകൾ അമ്പലത്തിലെ ഉത്സവങ്ങൾ ഇവിടെ തന്നെ ഒത്തിരി ഒത്തിരി വലിയ പേരുകേട്ട പള്ളികളൊക്കെ ഉണ്ട് ആ പള്ളികളിലെ ഓരോ പാരമ്പര്യവും തനിമയൊക്കെ കാത്തുസൂക്ഷിക്കുന്ന കുറേ പള്ളികളും ഒക്കെ ഉണ്ട് അതൊക്കെ കാണാനും അവരുടെ അതൊക്കെ ഉൾക്കൊള്ളാനുമൊക്കെ വിനോദസഞ്ചാരികൾ അവിടെ വരാനും വരാറുണ്ട് പിന്നെ അവിടുത്തെ പെരുന്നാളുകൾ അവിടെ നടക്കുന്ന ഓരോരോ ആചാരങ്ങളൊക്കെ കാണാനും അതിൻ്റെ ഭാഗമാകാനും ഒക്കെ വിനോദസഞ്ചാരികൾ സമയം അനുസരിച്ച് നമ്മുടെ നാടുകളിൽ വെരാറുണ്ട് പിന്നെ അതുതന്നെ അല്ല അമ്പലങ്ങളിൽ ആഘോഷങ്ങൾ അവിടുത്തെ ഓരോരോ കരിമരുന്ന് പ്രയോഗങ്ങൾ അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ ലൈറ്റ് കാര്യങ്ങൾ അവിടുത്തെ ഓരോരോ പ്രാർത്ഥനകൾ എല്ലാം കണ്ട് മനസ്സിലാക്കാനും കേൾക്കാനും എല്ലാം വിനോദസഞ്ചാരികൾ ആ സമയം കണക്കാക്കി വരാറുണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി വലിയ പള്ളികളുണ്ട് ഓരോ വിശുദ്ധന്മാരുടെയും വിശുദ്ധയുടെയും പേരിലുള്ള പള്ളികൾ അന്നേരം അവരുടെ ഒക്കെ ഓരോരോ ജീവചരിത്രങ്ങളൊക്കെ അറിയാനും എല്ലാം അതിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട് അന്നേരം അതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ ഇവിടെ വരുകയും എടുക്കുവൊക്കെ ചെയ്യും അങ്ങനെ അവർക്കും അതിനെല്ലാത്തിനും അനുവാദമുണ്ട് അവരെ നമുക്ക് ഒന്നിനും മാറ്റി നിർത്താനോ ഒന്നിനും പറ്റില്ല അവർ നമ്മളെ ഒരാളെ പോലെ തന്നെ അവരും നമ്മുടെ നാട്ടിൽ ആചരിക്കപ്പെടുന്ന ഓരോരോ ആചാരം അതായത് പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ നടക്കുന്ന ഓരോരോ ആചാരങ്ങൾക്കൊക്കെ അവരും പങ്കെടുക്കാറുണ്ട് അവരുടെ രീതിയിലായാലും വിനോദസഞ്ചാരികൾ നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മുടെ പള്ളികളിൽ അർപ്പിക്കപ്പെടുന്ന ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം അവരും അതിൻ്റെ ഭാഗമാകുന്നുണ്ട് നമ്മൾ അതിന് ഒരു തടസ്സങ്ങളോ ഒന്നും നിൽക്കാറില്ല അവരുടേതായ ഒരു ഇതായിട്ട് നമ്മൾ കണക്കാക്കും നമ്മൾ അവരെ നമ്മുടെ അതിഥികളായിട്ടാണ് നമ്മൾ അവരെ കണക്കാക്കുവേം നമ്മൾ അവരോടെല്ലാം പെരുമാറുവേം എല്ലാം ചെയ്യാറ് ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങനെ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ നടത്തപ്പെടുന്ന ഓരോരോ ഇതുകൾ അതല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ടൊക്കെ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളും ഒത്തിരി ഒത്തിരി

നമ്മുടെ നാടുകളിൽ കാണപ്പെടാറുണ്ട് അന്നേരം അതൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മടങ്ങാനും എടുക്കാനും എല്ലാം അവർക്ക് സാധിക്കുന്നുണ്ട് നല്ലൊരു ഇത് തന്നെയാണ് അങ്ങനെ വളരെ നല്ലൊരു വിനോദസഞ്ചാരികൾക്ക് നല്ലൊരു എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ഭാഗമാകാനായിട്ട് നമ്മുടെ ഈ സ്ഥലം എല്ലാം നമ്മൾ അനുയോജ്യം ആക്കാറുണ്ട്